ഞാൻ താമസിക്കുന്നത് മാന്താനം എന്നു പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഇവിടെ ഇവിടെ എല്ലാ മതത്തിലുമുള്ള ആൾക്കാരുണ്ട് ക്രിസ്തീ ക്രിസ്ത്യാനികളാണെങ്കിലും ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദമാണ് എല്ലാത്തരത്തിലുള്ള ആൾക്കാരും ഇവിടെയുണ്ട് അവർ തമ്മിൽ നല്ല സ്നേഹമാണ് ഫെബ്രുവരി മാസത്തിലാണ് കൂടുതലായിട്ടും ഇവിടെ ഉത്സവങ്ങളും പെരുന്നാൾ പള്ളി പെരുന്നാളുകളൊക്കെ നടക്കുന്നത് പെരുന്നാളിൻ്റെ സമയത്താണെങ്കിലും നമ്മുടെ ഈ വഴിയിൽ കൂടെയാണ് പള്ളിയിലെ പ്രദക്ഷിണവും പിന്നെ ഉത്സവങ്ങളാണെങ്കിൽ അവരുടെ പ്രദക്ഷിണമൊക്കെ നമ്മുടെ റോഡിൽ കൂടെയാണ് അപ്പം എല്ലാ മതത്തിലുള്ള ആൾക്കാരും അതൊക്കെ വന്നു കാണുകയും അതൊക്കെ ആസ്വ അതൊക്കെ കണ്ട് അത് അത് അതിനോടൊരിഷ്ടമുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളവർ പിന്നെ പ്രാർത്ഥനകളാണെങ്കിൽ ഓരോ മാസവും ആ മാസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടുള്ള ഓരോ പ്രാർത്ഥനകൾ വഴിപാടുകൾ പല ചടങ്ങുകൾ തീർത്ഥാടനങ്ങൾ ഓരോ ഇപ്പം ഇവിടെ ഓരോ തീർത്ഥാടനങ്ങൾ അങ്ങനെ ഇവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളില്ലെങ്കിൽ പോലും ആ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഇവിടെ ഉള്ളവർ പോകാറുണ്ട് പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് അങ്ങനെ ഇവർ ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ സ്നേഹത്തിലാണങ്ങനെ ക്രിസ്ത്യാ ക്രിസ്ത്യാനികളെന്നോ അല്ലെങ്കിൽ ഹൈന്ദവരെന്നോ മുസ്ലിംസെന്നോ വേർതിരിവില്ലാതെ എല്ലാവരും മനുഷ്യരായി കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവിടെയുള്ളത് പിന്നെ ഇവിടെ പെരുന്നാൾ വരുമ്പോഴാണെങ്കിലും പിന്നെ ഉത്സവങ്ങളാണെങ്കിലും ചെണ്ടമേളം പാട്ട് അങ്ങനെ വളരെ ഭയങ്കര വളരെ ആഘോഷപൂർവ്വമായി ഇവിടെയൊക്കെ ഭയങ്കര വളരെ നന്നായി അലങ്കരിച്ചാണ് ഇതൊക്കെ അപ്പം ഇവിടെ ഇതൊക്കെ വളരെ മനോഹരമായി നടക്കുന്നൊരു സ്ഥലമാണ് ഇവിടെ